കൃഷിക്കും മറ്റും ഞങ്ങളെ നാട്ടില് വെള്ളത്തിനെന്ന് പറഞ്ഞാല് ഭയങ്കര ക്ഷാമാണ് വേനൽക്കാലായാൽ തീരെ വെള്ളേണ്ടാവില്ല കൃഷികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നെൽക്കൃഷിയെന്ന് നെല്ലൊന്നും നടാനെ പറ്റില്ല മഴക്കാല സമയത്താണ് നെല്ല് നടുന്നത് പിന്നെ വാഴക്കൃഷിയെന്ന് പറയുമ്പം വാഴ എപ്പളും നടും അയില് വെള്ളം കോരി ഒഴിക്കും അതിനും വെള്ളോന്നും ഇല്ല ഇപ്പോ എല്ലാ എല്ലാ എന്ത് പച്ചക്കറിയാണെങ്കിലും എന്ത് നടണങ്കിലും വെള്ളം വേണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള നാടാണ് ഞങ്ങടെ ഇപ്പഴത്തെ ഈ ഇതില് ഈ വർഷം വെള്ളത്തിന് ഭയങ്കര വരൾ വരൾച്ചയാണ് വെള്ളോന്ന് പറഞ്ഞ സാധനം ഇല്ല അവിടുന്നെങ്ങാനും ലോറീല് അങ്ങനെല്ലാം കൊണ്ടന്നിട്ടാണ് വെള്ളം കുടിക്കുന്നതുതന്നെ ഒരു തരത്തിലും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള നാടാണ് പിന്നെ പിന്നേന്ന് പറയുമ്പം അങ്ങനെ ജനങ്ങള് അങ്ങനെ വാഴ വാഴക്കൃഷി അങ്ങിനെയുള്ളതൊക്കെ നടൂള്ളൂ പിന്നെ വേനൽക്കാലായാൽ കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടും അതിനൊക്കെ വെള്ളം കുഴി എവിടെയെങ്കിലും കുഴിച്ചുവെച്ചിട്ട് ചിലപ്പം വെള്ളോണ്ടാവും ചിലപ്പം വെള്ളോണ്ടാവൂല അങ്ങനെയെല്ലാം കുറെ ഒണങ്ങിപ്പോവും പിന്നേ ചെല ആൾക്കാർക്കെല്ലാം കുറച്ച് വെള്ളോല്ലാം കിട്ടും അവരങ്ങിനെ കൃഷി നടത്തും അങ്ങനെയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മടെ ജലസേചനമെന്ന് പറയുമ്പം ജലം ഇല്ല തൽക്കാലം പറഞ്ഞാല്